വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പെൺകുട്ടികൾക്ക് സൈക്കിളോ ലാപ്ടോപ്പോ പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം എന്താണെന്നു വെച്ചിട്ടുണ്ടേൽ പെൺകുട്ടികൾ മാത്രമല്ല ഉയർന്നു വരിക ആൺകുട്ടികളും കൂടെ ഉയർന്നു വരണം എന്നു വെച്ചാൽ പെൺകുട്ടിൾക്ക് ഇപ്പം സൈക്കിൾ കൊടുത്തു അവർക്ക് പോകാനും വരാനും ഒക്കെ ഒരു സൗകര്യം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതേപോലെ തന്നെ ലാപ്പ് ടോപ്പ് കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യാ സമൂഹത്തിൽ പറയുന്നത് ആണ് പെണ്ണ് എന്നൊരു ഭേദഗതിയില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഒരേ സ്ഥാനമെന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെ കൊടുക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത് പിന്നെ വിദ്യാഭ്യസ യോഗ്യത സൈക്കിളോ ലാപ്പ് ടോപ്പോ നടക്കുന്നത് പോലെയുള്ള പദ്ധതികൾ കൊണ്ടല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെയൊക്കേ ഓരോ സമ്പ്രദായം നിലവിലുണ്ട് തമിഴ്നാട്ടിലൊക്കെ സൈക്കിൾ കൊടുക്കുന്നു ലാപ്പ് ടോപ്പ് കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പെൺകുട്ടികൾക്കു മാത്രം അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ലയെന്നു പറയുന്നതെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്നു വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാ സമൂഹത്തിൽ ജീവിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെയാണ് അപ്പം അവർക്ക് നല്ല നല്ല നമ്മുടെ ഇന്ത്യയിലെ നമ്മളിപ്പം ഓരോ സ്ഥലത്ത് ഇപ്പം കേരളത്തിൽ ജീവിക്കുന്നവർക്ക് കേരളത്തിൽ നല്ല നല്ല സ്കൂളുകളും കോളേജുകളും പഠിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുക തമിഴ്നാട്ടിലാണെങ്കിൽ കർണ്ണാടകയിലാണെങ്കിൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയെന്നല്ല അവർക്ക് വിദ്യാഭ്യാസം നല്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല കോളേജുകളും സ്കൂളുകളും കൊടുക്കുക നല്ല നല്ല ടീച്ചർമാരെ കൊടുക്കുക നല്ല നല്ല റ്റൂബ് പഠിത്തത്തിലൊക്കെ പുറകുള്ള കുട്ടികളെ അവരെ മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി അവരെ കൂടുതൽ ശ്രദ്ധിക്കുക അതിന് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കൊടുക്കുക പിന്നെന്താണ് അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് വിദ്യാഭ്യസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയോരോ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ കുറേ സൈക്കിൾ കൊടുത്തു ലാപ്പ് ടോപ്പ് കൊടുത്തു പുസ്തകം കൊടുത്തു എന്നു പറയുന്നതിൽ എനിക്കതിനോട് യോജിപ്പില്ല കുട്ടികൾക്ക് പഠിക്കാൻ എത്രത്തോളം സൗകര്യം കൊടുക്കുക അത് ലാപ്പ് ടോപ്പ് കൊടുത്തു കുട്ടികൾക്ക് ശരിയാണ് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തു പക്ഷേ അത് എല്ലാ കുട്ടികളും ആ പെൺകുട്ടികളെന്നു മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പം അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനെന്നു പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കുക പിന്നെ നല്ല പിന്നെ ഒത്തിരി പൈസ വാങ്ങി നമ്മളുടെ അടുത്ത് വിദ്യാഭ്യാസത്തിനൊക്കെ ഇപ്പം കച്ചവടമാക്കുന്നൊരവസ്ഥയാണ് കാരണം ഓരോരോ നല്ല കോളേജിൽ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ നല്ലൊരവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ലക്ഷങ്ങളും കോടികളും ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ ഒന്ന് ആകാതെ നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്ന ഈ സ്ഥലങ്ങളിൽ നല്ല നല്ല സ്കൂളുകൾ വന്നു കുട്ടികൾ പഠിച്ച് നല്ല നിലയിലെത്തി ഇപ്പം നമ്മുടെ ഈ ഇന്ത്യയിൽ കാണുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ പല വീടുകളിലും രക്ഷിതാക്കൾ മാത്രമേ ഉള്ളൂ പല വീട്ടിലും ആരും ഇല്ല കാരണം എല്ലാ മക്കളും പുറത്ത് പോകും പ്രായമായ അപ്പനും അമ്മയും മാത്രമുള്ളു അവരെ നോക്കാൻ ആരുമില്ല പഠനത്തിനായിട്ടാണെങ്കിലും ജോലിക്കാണെങ്കിലും എല്ലാവരും ഇവിടെ നിന്ന് ഇന്ത്യക്ക് പുറത്ത് പോയാണ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയേ തന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ അതിനുള്ള നല്ല കോളജുകളും സ്കൂളുകളും ജോലി ചെയ്യാനുള്ള നല്ല നല്ല അവസരങ്ങളും കൊടുത്ത് നല്ല ശമ്പളം ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിക്കുവാനുള്ള നല്ല നല്ല കോഴ്സുകളും നല്ല നല്ല സിലബസും ഒക്കെ കൊടുത്ത് ഇവിടെത്തന്നെ അവരെ നിർത്താനുള്ള ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഗവണ്മെൻറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾ ഒരു പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് അപ്പം അതൊക്കെ നമ്മുടെ മൈനസ് മാർക്കായിട്ടാണ് കാണുന്നത് കാരണം പല ഭാഗങ്ങളിലും നിലമുണ്ടല്ലേ അപ്പം ഇതൊക്ക് ഇതൊക്കെ കൊണ്ടു തന്നെയാണ് ഇങ്ങനെയുള്ള നല്ല നല്ല സമ്പ്രദായങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതു കൊണ്ടാണ് ഇവിടുന്നെല്ലാവരും തന്നെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് അപ്പം അത് തടയുക കാരണം അതിനുള്ള നല്ല നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആരും പുറത്ത് പോകാതെ നമ്മുടെ ഇവിടേ തന്നെ ജോലി ചെയ്യും അതിൻ്റെ ഒരു നല്ലൊരു ശതമാനമെന്നു പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കും ഗവണ്മെൻറ്റിലേക്കുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെ മാറാനുള്ള ഒരു കാരണമാണ് പിന്നെ മലയാളികൾ എവിടെ ചെന്നാലും ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും മലയാളികളേ കാണാനുള്ളൂ എന്നു പറയുന്നു സത്യമാണത് അപ്പം അവിടെ ചെന്നാലും ഏത് സൂര്യനുദിക്കാത്ത നാട്ടിൽ ചെന്നാൽ തന്നെ മലയാളികളെ കാണുമെന്ന് പറയും ശരിയാണത് എന്തുകൊണ്ടും മലയാളികളെങ്ങനെയെങ്കിലും എവിടെയും എത്തിച്ചേർന്ന് രക്ഷപ്പെടണമെന്നു വിചാരിച്ചു കൊണ്ടാണ് ഇവിടെ പണി ചെയ്യാൻ മടിയുള്ളവൻ ഇപ്പം ദൂരസ്ഥലങ്ങളിൽ പോയി മറ്റുള്ളവരുടെ എച്ചിൽപ്പാത്രം കഴുകാൻ വരെ തയ്യാറാകുന്നത് കാരണം ഇവിടെ അതിനുള്ളൊരു ഇത് ഇല്ലാത്തതു കൊണ്ടാണെല്ലാവരും പുറത്തേക്ക് പോകുന്നത് അപ്പം അതിനുള്ള സാഹചര്യം ഒരുക്കാതെ പുറത്തു പോയി ഇതാവാതെയും പഠിക്കാതെയും ഇവിടെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യസത്തെ പ്രോത്സാഹിപ്പിക്കാനും നല്ലൊരു ജോലി ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും നിലനിർത്തി പോകാനുള്ളൊരവസരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺകുട്ടികൾക്ക് സൈക്കിളോ ലാപ്പ് ടോപ്പോ നൽകുന്നത് പോലെയുള്ള പദ്ധ്തികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അപ്പം അത്തരം അത്തരം പദ്ധതികൾ ഫലപ്രദമാണെന്നു ഞാൻ കരുതുന്നേ ഇല്ല കാരണം എല്ലാവരും ഒരുപോലെയാണ് എല്ലാ മക്കളും ഒരുപോലെയാണ് പോണെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ പരിഗണനയും കൊടുത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാ മെച്ചപ്പെടുവാൻ സാദ്ധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്